ആ ചേച്ചി ആയിക്കോട്ടെ ഓക്കേ അതേ അല്ലേ അപ്പോൾ നിങ്ങള്ക്ക് പഴയ മറ്റേ പുതിയ ആർസി മോഡൽ വീടാണോ വേണ്ടത് അതോ ഓട് മറ്റേ ഓട് വെച്ചിട്ടുള്ള വീടാണോ വേണ്ടത് പഴയ തറവാട് പോലെ നാലുകെട്ട് പോലെത്തെയാണോ ഉദേശിക്കുന്നത് ആ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് ഇപ്പോഴത്തെ മറ്റേ നമ്മൾ ആർസി വീടാകുമ്പോ രണ്ടായിരത്തി എണ്ണൂറ് മുവായിരം ഉറുപ്യയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഇടുന്നത് മറ്റേ തറവാട് മോഡലാകുമ്പോൾ അതിന് മറ്റേ നമ്മടെ മരപ്പണി കൊത്തുപണിയൊക്കെ കുടും അപ്പോ അതിനു സ്ക്വയർ ഫീറ്റിന് പൈസ കൂടുതലായിരിക്കും ആ നമ്മള് ഇപ്പോൾ ഒരെണ്ണം പഴയ മോഡൽ അത്ര നാലുകെട്ട് മോഡലല്ല എന്നാലും പഴയ ഒരു മോഡലിലൊന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊരു വിഡിയോസും കാര്യങ്ങളും അയച്ചുതരാം അതൊന്നു നിങ്ങൾ കണ്ടുനോക്കു അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി മുന്നൂറ് അല്ലെ പറഞ്ഞത് അപ്പോൾ താഴത്ത് എത്ര റൂമും കാര്യങ്ങളുമൊക്കെയാണ് വേണ്ടത് രണ്ടുനില

അതിലിപ്പോൾ മറ്റേ

മുകളിൽ ബെഡ്റൂമാണോ വേണ്ടത് മുകളിൽ രണ്ടു ബെഡ്റൂമാ താഴത്തെ മറ്റേ നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ ഉള്ളിൽകൂടെ വേണോ പുറത്തുകൂടെ വേണോ ആ ഓക്കേ ഈ മറ്റേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നടുമുറ്റം ആ ഓക്കേ ആ ഓക്കേ ആ നമുക്ക് ടെക്നോളജി അതില് ഉള്ളിലുള്ള ടെക്നോളജി മൊത്തം നമുക്ക് പുതിയതാക്കാം കാണുമ്പോൾ ഒരു പഴയ തറവാട് മോഡൽ പോലെ റെഡിയാക്കി വിടാം മുകളിൽ മച്ഛ് എന്തെങ്കിലും വേണോ ആ ഓക്കേ ഞാന് ആ നമ്മുക്കിപ്പോൾ സ്ക്വയർഫീറ്റിന് പ്രകാരം നോക്കിയിട്ട് ഞാൻ രണ്ടുദിവസത്തിനുള്ളിൽ പ്ലാൻ അയച്ചുതരാം അപ്പോൾ അതിൻ്റെയൊപ്പം നിങ്ങൾക്ക് ഏകദേശമൊരു ബഡ്ജറ്റു ഞാൻ പറയാം അതായത് നമുക്ക് ആ മരത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് വേണം അയി അതിൻ്റെ ബജറ്റ് പറയാൻ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല ആ അത് അയച്ചുതരാം അയച്ചുതരാം ഓക്കേ ശരി താങ്ക്യൂ